ഇരുചക്ര വാഹനങ്ങളില് യാത്ര ഏറ്റവും റിസ്ക് പിടിച്ചൊരു യാത്രയാണ് കാരണം ഒന്ന് പിന്നെ റോഡുകളിലെ മോശം അവസ്ഥ പലവാഹനങ്ങളും വരുമ്പഴ് ഗട്ടർ കട്ട് ചെയ്ത് പോരുമ്പോൾ നമ്മള് തൊട്ടടുത്തുള്ള കട്ടറിലേക്ക് വീഴുന്ന സ്ഥിതിവിശേഷമുണ്ടാകും അതേപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിലൊക്കെയാണ് എങ്കില് എതിരെ വരുന്ന വാഹനങ്ങള് ഡിം ലൈറ്റിടാതിരിക്കുന്നത് വലിയ പ്രതിസന്ധി ഇണ്ടാക്കാറ്ണ്ട് ടൂവീലറ്കാര്ലെ സംബന്ധിച്ചെടത്തോളം ഫോർ വീലറൊക്കെ ആണെങ്കില് പിന്നങ്ങനെ പെട്ടെന്ന് മറിഞ്ഞു പോകുന്ന സ്ഥിതി വിശേഷൊന്നൂല്ല ഇത് ചെറിയൊരു കട്ടർലോ മറ്റൊക്കെ പെട്ടിട്ടുണ്ടെങ്കില് സൈഡിലൊക്കെ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കാണാതിരിക്കുക അതിൽ പോയി പെടുവൊക്കെ ചെയ്യുന്ന സ്ഥിതി വിശേഷമുണ്ടാകാറുണ്ട് പിന്നെ മഴക്കാലത്ത് ഏറ്റവും കൂടുതല് യാത്ര ദുരിതപൂർണ്ണമാകുന്നത് ബൈക്ക് യാത്രക്കാർക്കാണ് ആ സമയത്ത് റെയിൻ കോട്ടുകള് നല്ല ഹെൽമറ്റോക്കെ യൂസ് ചെയ്യുന്നത് കുറെ പരിഹാരമാണ് പിന്നെ വന്യമൃഗങ്ങള് ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഈ പന്നിപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റോഡിലേക്ക് ചാടി വീഴുകയും ബൈക്ക് മുമ്പിൽപ്പെടുകയും ബൈക്ക് തട്ടി ബൈക്ക് മറിഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇഷ്ടപോലെ ഉണ്ടാകാറുണ്ട് ആ സമയത്തൊക്കെ വളരെ വേഗത കുറച്ച് സൂക്ഷിച്ചു പോകുക എന്നതാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം